മലയാള ഭാഷ മിശ്രഭാഷയെന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതവും തമിഴും കൂടിക്കലർന്നാണ് മലയാളം ഉണ്ടായത് അധികവും സംസ്കൃതതത്തിൽ നിന്നാണ് മലയാള ഭാഷയിലേക്ക് വാക്കുകൾ കടമെടുത്തിരിക്കുന്നത് മലയാളം എഴുത്തച്ഛന്റെ കാലം മുതലാണ് ശുദ്ധമലയാളം ഉണ്ടായിട്ടുള്ളത് പിന്നീട് നിരവധി മാറ്റങ്ങളിലൂടെയാണ് ഇന്ന് കാണപ്പെടുന്ന മലയാളമായി മാറിയത്